വയനാട് ജില്ലയിൽ വീടുകൾ വാടകയ്ക്കാണെങ്കിൽ പല റെയ്റ്റിലുള്ള വീടുകളും ലഭ്യാണ് ലോ ബജറ്റ് തൊട്ട് ഹൈ ലെവല് വരെ ഉണ്ട് ടൂറിസം മേഖല ആയതുക്കൊണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീടുകൾ ഇവിടെ ലഭ്യമാണ് പിന്നെ വിദ്യാർത്ഥികൾക്കനുസരിച്ച് ചെറിയ ചെറിയ ക്വാട്ടേർഴ്സുകൾ ഉണ്ട് ഒര് മൂന്നോ നാലോ വിദ്യാർത്ഥികൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥികൾക്ക് ഒരായിരം രൂപ എന്ന രീതിയിലൊക്കെ വരണ രീതി നമുക്ക് കിട്ടും പിന്നെ കുറച്ച്കൂടി ടൂറിസം മേഖലയിലോട്ട് ഒക്കെ വരികയാണെങ്കിൽ നല്ല റേറ്റും വരും നല്ലൊരു വീടൊക്കെയായിരിക്കുമത് പിന്നേ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വീട് വച്ച് താമസിക്കുന്നുണ്ട് അത്യാവശ്യം സ്ഥലം മേടിക്കുന്ന ആൾക്കാർ അഞ്ച് സെൻ്റും പത്ത് സെൻ്റും ആയിട്ട് വീട് വച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കണ രീതിയിലൊരു വീടൊക്കെ വച്ച് പോകുന്നുണ്ട് പിന്നെയിപ്പം വീടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു അന്തരീക്ഷമുള്ള കാലാവസ്ഥയിലുള്ള വീടുകളൊക്കെ ഇവിടെ ലഭ്യമാണ്